വോയിസ് കോളും അതുപോലെ തന്നെ വീഡിയോ കോളും നാം കംപെയർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളത് വോയിസ് കോളാണ് കാരണം വീഡിയോ കോൾ എന്നുള്ളത് പല കാരണങ്ങളാലും മറ്റു ആളുകളിൽ നിന്നും മറച്ചു വെക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ വോയിസ് കോളാകുമ്പോൾ നമുക്ക് വോയിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആളുകളിൽ നിന്നും മറച്ചു വെച്ചാൽ മതി കാരണം നാം മറ്റുള്ളവരെ കാണിക്കേണ്ടതെന്നും കാണിക്കേണ്ടാത്തതുമായ പല കാര്യങ്ങളുണ്ടാകും അത് വീഡിയോ കോൾ ആകുമ്പോൾ നാം വോയിസും അതു പോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം വളരെ ക്ലിയറായി ശ്രദ്ധിക്കണം പക്ഷെ വോയിസ് ആകുമ്പോൾ നാം അതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിന് വോയിസ് ക്ലിയർ ക്ലാരിറ്റി മാത്രം നോക്കിയാൽ മതി അങ്ങനെയാകുമ്പോൾ നമുക്ക് തികച്ചും വോയിസ് കോളാണ് ഒരു നല്ല ഒരു ഓപ്ഷനായി തിരഞ്ഞെടുക്കേണ്ടത് ഇഷ്ടമായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അത് അതു പോലെ തന്നെ ഫോൺ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത സംഭവമായതിനാൽ ഒരു ഉപകരണമായതിനാൽ ഫോണിൽ നാം ധാരാളം പ്രവർത്തികളും ധാരാളം കാര്യങ്ങളും എന്തിനേറെ നമ്മുടെ കരണ്ട് ബില്ലും അതു പോലെ തന്നെ പൈസ ഇടപാടുകളും എല്ലാം ഇന്ന് ഫോണിലേക്ക് മാറിയതിനാൽ ഇന്ന് ഫോൺ ഒരു നിത്യോപയോഗ വസ്തുവായി മാറിയിട്ടുണ്ട് അതിനാൽ ഇന്ന് ഒരു രണ്ട് മുതൽ അഞ്ച് മണിക്കൂർ വരെ ഒരു ദിവസം ഞാൻ ഫോണിൽ ചിലവഴിക്കാറുണ്ട് കാരണം ഇന്നത്തെ അവസ്ഥ ഇന്ന് ഫോൺ ഒരു ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഉപകരണമായി നമ്മുടെ ജീവിതത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ആയതിനാൽ തന്നെ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയാൻ കഴിയാത്ത ഒഴിച്ച് കൂടാനാകാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഇത് തികച്ചും ഒരു മനുഷ്യ ഒരു വ്യക്തിയെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ ഇന്നത്തെ കാലം അങ്ങനെ മാറി കഴിഞ്ഞിരിക്കുന്നു ഏതൊരു വസ്തുവാണെങ്കിലും നമ്മുടെ വാട്സാപ്പാണെങ്കിലും ഫേയ്സ്ബുക്ക് യൂട്യൂബ് പോലെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരമുള്ള ഒരു വസ്തുവാണ് പണ്ട് കാലങ്ങളിൽ പൈസ അടക്കാനും പൈസ എടുക്കാനും ബാങ്കിൽ പോകേണ്ടിയിരുന്നതിനാൽ ഈ ഇന്നീ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള ആവശ്യമില്ല നമുക്ക് ഇന്ന് ഓൺലൈൻ പേയ്മെൻറ്റുകൾ നടത്താൻ വളരെ ഈസിയാണ് വളരെ ചുരുങ്ങിയൊരു സമയത്തിൽ തന്നെ നമുക്ക് പൈസ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതു പോലെ തന്നെ കരണ്ട് ബില്ലും മറ്റു ബിൽ പേയ്മെൻറുകളും നടത്താനും നമുക്ക് ഇന്ന് വളരെ സഹായകമായ ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ അത് ഒഴിച്ച് ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് ആയതിനാൽ തന്നെ ഇന്ന് ആളുകൾ അധികവും ഇതിൽ മുഴുകി കൊണ്ടിരിക്കുകയാണ്